ഞാൻ കണ്ടിട്ടുള്ള ചെറുകിട സംരംഭങ്ങളെന്നു പറയുന്നത് ഒന്ന് മൺപാത്ര നിർമ്മാണം കുടനിർമ്മാണം പിന്നെ നൈറ്റി ഗാർമെൻസിൻ്റെ വർക്കുകള് പിന്നെ അതുകഴിഞ്ഞതിനു ശേഷം വള നിർമ്മാണം ആഭരണങ്ങൾ ഉണ്ടാക്കല് ഇതാണ് ഏറ്റവും രസകരമായി തോന്നിയതെന്ന് പറയുന്നത് നമ്മുടെ പാഴായിക്കളയുന്ന പ്ലാസ്റ്റിക്കും എടുത്ത് ഒരു രൂപയുടെ കവറുകള് ഉപയോഗിച്ചുകൊണ്ട് പല പല രീതിയിലുള്ള പൂക്കളുണ്ടാക്കുന്നത് പിന്നെ ഉള്ളിയുടെ തോല്വെച്ചിട്ട് അതിൻ്റെ അത് വെച്ചിട്ട് പൂക്കളുണ്ടാക്കുന്നതൊക്കെയാണ് കണ്ടിട്ടുള്ളതിൽ രസകരമായിട്ടുള്ളതെന്ന് പറയുന്നത്